ഹലോ ചേച്ചി എനിക്ക് അതെ

അതേ എൻ്റെ മോൾ വന്നിട്ടുണ്ടേ അപ്പം അവൾക്ക് ഇംഗ്ലീഷ് ന്യൂസ്പേപ്പർ എന്തെങ്കിലും ഒന്നുകൂടെ വരുത്താൻ വേണ്ടി അല്ലാതെ വേറെ നാളെ തൊട്ട് വേണമായിരുന്നു ഓക്കെ അപ്പം ഇത് ന്യൂസ്പേപ്പർ ഇടാൻ വരുമ്പോഴേ ഗേറ്റിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ തന്നെ ഇടണം

ആ അതും ആ അത് മഴ കൊണ്ട് ന്യൂസ്പേപ്പർ ഫുൾ നനഞ്ഞിരുന്നു

ഉം ഉം ഉം മാഗസീൻസ് വേറെ എന്തെങ്കിലും ഉണ്ടോ ഏ ആണോ ആ എന്നാൽ വനിത എല്ലാ വും വേണം കേട്ടോ മാസത്തിൽ മതി ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്